പൂന്തോട്ട പരിപാലനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് കത്രിക പിന്നെ നമ്മള് വാട്ടറ് ഷവറ് ചെയ്യുന്ന സാധനം അതൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഉപകരണങ്ങളെന്നു പറയുമ്പോൾ കത്രികയങ്ങനെ ചെടികളൊക്കെ ഷെയിപ്പ് ചെയ്തുകൊടുക്കുക ഇപ്പം കുറെ ഇപ്പം കുറെ ഇപ്പം എല്ലായിടത്തും മറ്റേ നമ്മളെ ഇലച്ചെടികളാണല്ലോ അതിങ്ങനെ ഓരോ ഷെയിപ്പിലൊക്കെ ആക്കികൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കത്രിക കത്രിക കൊണ്ടെല്ലാം ഷെയിപ്പൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കി ഓരോ ഷെയിപ്പില് ബുഷ് ചെടികളൊക്കെ ആക്കിക്കൊടുക്കുക പിന്നെ വെള്ളം പമ്പ് ചെയ്തു കൊടുക്കുന്ന സാധനങ്ങള് പമ്പ് ചെയ്തല്ല ഷെവറ് ഷെവറ് അത് പോലത്തെ സിസ്റ്റങ്ങൾ കൊടുക്കുന്ന സാധനങ്ങള് പിന്നെ മരുന്ന് മരുന്ന് തളിച്ച് കൊടുക്കുന്ന സാധനങ്ങള് ഉപകരണങ്ങള് അതൊക്കെയാണ് പൂന്തോട്ട പരിപാലനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളെ ചെടി ചെടി മണ്ണിളക്കി കൊടുക്കുന്ന ഒരു ഒരുന്നൊന്ന് ഒരു കത്രിക പോലത്തന്നെ ഒരു ഷെയിപ്പുള്ളൊരു സാധനം അതൊക്കെ കൊണ്ടാണ് പരിപാലിക്കുക പൂന്തോട്ടം ചെടി ഇടയ്ക്കിടയ്ക്കിങ്ങനെ ഇളക്കിക്കൊടുക്കണം അല്ല മണ്ണെളക്കി തട്ടിക്കൂട്ടിക്കൊടുക്കണം അത് പിന്നെ ചില ബെഡ് ചെയ്യാൻ വേണ്ടീട്ടൊക്കെയാണെങ്കില് ബ്ലൈഡ് വേണം ബെഡ് ചെയ്തിട്ട് ചെടിയെ മുറ കട്ട് ചെയ്ത് കൊടുക്കാല്ല സൈഡ് ബെഡ് ചെയ്യുമ്പം അതിനു വേണ്ടി ബ്ലൈഡ് ഉപയോഗിക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കും